ആദ്യംതന്നെ പറയാനുള്ളത് ജനാധിപത്യമെന്ന് പറഞ്ഞാൽ ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സിസ്റ്റമാണ് ജനാധിപത്യം അങ്ങനെയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ ഇന്ത്യയുടെ ജനാധിപത്യത്തെ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് വലിയൊരു ജനാധിപത്യ രാഷ്ട്രംതന്നെയാണ് പക്ഷേ പലതരത്തിലുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും ഒക്കെയുണ്ട് പല രാഷ്ട്രീയ പാർട്ടികള് ഇന്ത്യയിലുണ്ട് ഇന്ത്യയെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ജനങ്ങള് തന്നെ തെരഞ്ഞെടുത്തതാണ് പക്ഷെ ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവര് ഭരണത്തിലെത്തിക്കഴിഞ്ഞാല് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റുന്നില്ല അവരവരുടെ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരവരുടേതായിട്ടുള്ള കുറേ ഫിലോസഫി കുറേ ഐഡിയകളുണ്ട് അതൊക്കെ ജനങ്ങളുടെ മേലില് അടിച്ചമർത്താനാണ് നോക്കുന്നത് അതാണ് എനിക്കാദ്യം തന്നെ അനുഭവപ്പെട്ടിട്ടുള്ള ദോഷമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് പല ജനങ്ങളും പല രീതിയിലാണ് പല വരുമാനമുള്ള രീതിയിലുള്ളവരാണ് വരുമാനമുള്ളവരാണ് പക്ഷെ പലർക്ക് ഉള്ളവരും ബിലോ പ്രോവർട്ടി ലൈനില് ജീവിക്കുന്നവരാണ് അവരെയൊന്നും ഗവണ്മെൻറ്റ് കാണുകയോ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നില്ല എന്നുവച്ചാല് ചില കാര്യങ്ങള് ചില രാഷ്ട്രീയപ്പാർട്ടികള് ജനങ്ങൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ട് അത് തന്നെ അപൂർവ്വം രാഷ്ട്രീയപ്പാർട്ടികൾ മാത്രം അങ്ങനെ കൊടുക്കുന്ന പല രാഷ്ട്രീയപ്പാർട്ടികൾക്കും ജനങ്ങൾക്കും മുൻഗൺന കൊടുക്കുന്ന രാഷ്ട്രീയപ്പാർട്ടികൾക്കും ഇന്ന് ഇന്ത്യയിൽ നിലനിൽപ്പില്ല